ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയുള്ളതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്ത്യൻ ആകുമ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം ഒരേപോലെ കൊടുക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ എല്ലാവരും എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം മുസ്ലിംസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ തന്നെ മുസ്ലിംസിന് അന്ന് പതിനെട്ട് വയസ്സാകുമ്പോൾ മുസ്ലിംസ്കളെ പിള്ളേരെ കെട്ടിച്ച് വിടും അപ്പം അവർക്ക് അന്നേരം അവരുടെ വിദ്യാഭ്യാസം എല്ലാം നഷ്ടമാകുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താ പറയുക എല്ലാവർക്കും ഒരേപോലെ വിദ്യാഭ്യാസം വേണം ഇന്ത്യയിൽ ആണെങ്കിൽ തന്നെ അതേപോലെ തന്നെ ആദിവാസി എസ് ടി വിഭാഗത്തിൽപ്പെട്ട പിള്ളേർക്കൊക്കെ എന്താ സർക്കാർ ആനുകൂല്യങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് അതുപോലെ തന്നെ അരി ബാഗ് അതുപോലെ കുറെ ആനുകൂല്യങ്ങൾ സർക്കാർ വക അവർ കൊടുക്കുന്നുണ്ട് അപ്പം ഈ അരി സാധനങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രം വരുന്ന പിള്ളേരും ഉണ്ട് സ്കൂളിൽ വരുന്ന പിള്ളേരും ഉണ്ട് അപ്പം അതാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിംസിന് ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പതിനെട്ട് വയസ്സ് ആകുമ്പോളേക്കും മുസ്ലിംസിൻ്റെ വിദ്യാഭ്യാസം പകുതി ആക്കിയിട്ട് അവരെ കെട്ടിച്ച് വിടുന്ന സമ്പ്രദായം ഉണ്ട് അത് വേറൊരു വെല്ലുവിളിയായിട്ട് നമുക്ക് എടുക്കാം എന്ന് വെച്ചാൽ നമ്മളുടെ വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരേപോലെ വേണം എന്നുള്ള കാലത്ത് തന്നെ എന്താ പറയുക എന്താ പറയുക ഒരു പതിനെട്ട് വയസ്സ് ആകുമ്പോൾ മുസ്ലിംസിനെ കെട്ടിച്ച് വിടുക അപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസം പകുതിക്ക് വെച്ച് നിർത്തും അതാണ് പ്രധാനമായിട്ടുള്ള വെല്ലുവിളികൾ എന്നൊക്കെ പറയാനുള്ളത്